ടൂറിസം വിനോദസഞ്ചാരികളെ ഒരുപാട് ആകര്ഷിക്കേണ്ടതാണ് നമ്മുടെ നാട് ആലപ്പുഴ ജില്ലയിലാണ് ഞാന് താമസിക്കുന്നത് അവിടെത്തന്നെ ഒരുപാട് ബീച്ച്കളുണ്ട് അത് ജന വിനോദസഞ്ചാരികളെ ഒരുപാട് ആകര്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വഴികൾ ആണെങ്കിലും നല്ല രീതിയില് വിപുലപ്പെടുത്തുകയാണെങ്കിൽ വിനോദസഞ്ചാരികള്ക്ക് വരാൻ എളുപ്പമായിരിക്കും പിന്നെ അതുപോലെത്തന്നെ ദൂരത്തുനിന്നെക്കെ വരുന്ന ആള്ക്കാരാണെങ്കില് നമുക്ക് കടകൾ നല്ല രീതിയിൽ പടുത്തുയര്ത്തുകയോ അല്ലെങ്കിൽ അതുപോലെ ഫുഡ് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയോ വല്ല വഴിയോരക്കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുക അവര്ക്ക് അതിന് വേണ്ട നമ്മൾ സാമഗ്രികൾ എത്തിച്ച് കൊടുക്കുക സാമ്പത്തികമായിട്ടോ ഒക്കെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഒരുപാട് കച്ചവടക്കാരെത്തും അപ്പം അത് വിനോദസഞ്ചാരികള്ക്ക് ഒരു നല്ല ഒരു പ്രോത്സാഹനമായിരിക്കും അവര്ക്ക് വരാനായിട്ട് എത്തിപ്പെടാനും ഒക്കെയുള്ള അതുപോലെത്തന്നെ വിനോദസഞ്ചാരികൾ വരുമ്പോഴത്തേക്ക് ആണെങ്കിൽ പോലും നമ്മള്ക്ക് അവര്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒക്കെ ചെയ്യുകയാണെങ്കില് ഒരുപാട് വിനോദസഞ്ചാരികൾ നമ്മുടെ കേരള നാട്ടിലേക്ക് വരാന് ഒരു താല്പ്പര്യം കാണിക്കും അതുപോലെത്തന്നെ കനാലുകളും ഒക്കെ ഒരുപാട് വൃത്തിയാക്കി നല്ല രീതിയില് ഇടുകയാണെങ്കില് അതും ആളുകള്ക്ക് കാണാനൊരു ഇമ്പമായിരിക്കും അത് കൂടാതെ തന്നെ നമ്മള്ക്ക് ബോട്ടിംഗ് ഒക്കെ അത് നല്ല രീതിയിലൊക്കെ ഏര്പ്പെടുത്തുകയാണെങ്കിൽ അത് വിനോദസഞ്ചാരികള്ക്ക് വന്ന് എത്തിച്ചേരാനും ഉള്ള ഒരു നല്ല ഒരു വഴിയാണ് പിന്നെ കൂടാതെ നമ്മൾ വൃത്തിയാക്കുന്നത് ബീച്ച്കളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിയാതെ അത് നല്ല രീതിയില്ത്തന്നെ ഉപയോഗ ശൂന്യമായ സാധനങ്ങൾ നമ്മൾ ഏതെങ്കിലും സൈഡിൽ ഒതുക്കിയിടാതെ വഴിയിൽ വലിച്ചെറിയാതെ ബീച്ചിൽ ആണെങ്കിലും ഓരോ സലത്തും മലിനമായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയെക്കെ എറിയുക ഒത്തിരി ഓരോരുത്തർ സൂക്ഷിക്കാതെ ഇടുന്നതാണ് പക്ഷെ അതെക്കെ നമ്മൾ കെയറ് ചെയ്യുകയാണെങ്കില് നമ്മുടെ വിനോദസഞ്ചാരികൾ ഒരുപാട് നമ്മളിലേക്ക് കേരളത്തിലേക്ക് ആകര്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബീച്ചും പരിസരവും അത് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും കൂടി ആവശ്യമാണ്